ഇപ്പം കേരളത്തിൽ എന്ന് പറയുമ്പോൾത്തേക്ക് പതിനാല് ജില്ലയുണ്ട് അപ്പം പതിനാല് ജില്ലയിലും പതിനാല് ഭാഷാ രീതികളാണ് അപ്പോൾ കോട്ടയം ജില്ലേനെപ്പറ്റി പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ അച്ചടി ഭാഷ എന്നാണ് ഇപ്പം നമ്മുടെ കാസർഗോഡ് കണ്ണൂര് അവിടുത്തെ ആൾക്കാരൊക്കെ ഭാഷ എന്ന് പറയുമ്പത്തേക്കും നമുക്ക് മനസ്സിലാകത്തില്ല നമുക്ക് എന്ന് പറയുമ്പത്തേക്ക് നമുക്ക് പൊതുവേ അങ്ങനെ മനസ്സിലാകത്തില്ല അവരുടേതെന്ന് പറയുമ്പത്തേക്ക് വളരെ വ്യത്യാസമായ ഭാഷ ഒക്കെ ആണുള്ളത് ഇപ്പം നമ്മുടെ നാട്ടിലെ കപ്പേനെയൊക്കെ കാസർഗോഡ് പറയുന്നത് കുണ്ടി കിഴങ്ങെന്നാണ് കേൾക്കുമ്പം തമാശ ആയിട്ട് തോന്നും പക്ഷെ അങ്ങനെയാണ് അതിനെ അറിയപ്പെടുന്നത് പിന്നെയിപ്പം തിരുവനന്തപുരത്തേക്ക് വരുമ്പത്തേക്ക് അവിടുത്തെ ഭാഷ രീതി എന്ന് പറയുമ്പത്തേക്ക് എന്നാ നമ്മുടെ കൂടെ പഠിക്കുന്നവരൊക്കെ അവര് തിരുവനന്തപുരത്ത് നിന്ന് ഉള്ളവരൊക്കെ നമ്മൾ ഇപ്പം സംസാരിക്കുമ്പത്തേക്ക് അവര് എന്തര അപ്പി എന്തര കിളി അങ്ങനൊക്കെ പറയുമ്പത്തേക്ക് നമുക്കങ്ങനെ എന്നാ നമുക്കൊരു രസകരമായി തോന്നുകയും ഓരോ ഓരോ സ്ഥലത്ത് ഓരോ ഭാഷ രീതി അതൊരു പിന്നെ പൊതുവേ നമുക്കത് മനസ്സിലാകാൻ വളരെ പാടാണ് ഇപ്പം കാസർഗോഡ് കണ്ണൂരുകാരുടെ ഭാഷയാണ് ഏറ്റവും ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്കങ്ങനെ പെട്ടെന്ന് കിട്ടുന്നൊരു കാര്യമല്ലത് അതിപ്പം വളരെ വ്യത്യാസപരമായിട്ടായിരിക്കും സംസാരിക്കുന്നത് നമുക്ക് അങ്ങനെ മനസ്സിലാവാൻ എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല പിന്നെ പറയുമ്പത്തേക്ക് ഒരു നമുക്കൊരു ഇത് തോന്നുന്നത് എന്ന് വെച്ചാൽ എറണാകുളംകാരുടെ ഭാഷയാണ് എറണാകുളംകാർ എന്ന് പറയുമ്പത്തേക്ക് ഒരു നീട്ടമുള്ള ഒരു ഭാഷയാണ് വലിയ നീട്ടവല്ല എന്നാലൊരു ചെറിയ നീട്ടമുള്ള ഭാഷയാണ് എന്താണ് മച്ചു എന്താണിവിടെ ഇങ്ങനെയാണ് നമുക്ക് അടിച് പൊളിക്കണ്ടേ ഇങ്ങനെയൊക്കെയാണ് എറണാകുളംകാരുടെ ഭാഷ ഇതൊക്കെ നമ്മള് ആദ്യമായിട്ട് കേക്കുമ്പത്തേക്ക് നമുക്ക് വളരെ രസമായിട്ട് തോന്നും പിന്നെ നമ്മള് ഓരോ സ്ഥലത്ത് പോയി നിൽക്കുമ്പത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ആ ഒരു സ്ലാങ്ങ് നമ്മള് പഠിക്കും നമ്മൾ അവരുടെ ഒരു സ്ലാങ്ങ് അങ്ങ് നല്ല രീതിയിൽ അങ്ങ് പഠിച്ച് നമുക്ക് വലിയ ഇതില്ലാതങ്ങ് പഠിച്ച് പോവും അതിപ്പം എന്നെ ഞാൻ പറയണ്ടേ ഇപ്പം നമ്മളിപ്പം കുറെ കാലം എറണാകുളം പോയി നിന്ന് നമ്മള് നാട്ടിൽ വന്നിട്ട് എന്താണ് മച്ചു അങ്ങനത്തെ ആ രീതിയിലൊക്കെ നമ്മള് സംസാരിക്കും പക്ഷെ അതേ സമയം നമ്മളിപ്പം തിരുവനന്തപുരത്ത് പോയാണ് പഠിക്കുന്നതെങ്കിൽ എന്തരപ്പി എന്തൊരു വർത്താനങ്ങൾ അങ്ങനൊക്കെ പറയും അതേ സമയം നമ്മള് കാസർഗോഡും കണ്ണൂരും ഗോണാവറെ ഭാഷ രീതിയിലേക്ക് നമ്മള് വലിയ വ്യത്യാസം വരുവെന്നും ഇല്ല എന്നാലും നമ്മുടെ ആ സ്ലാങ് ചെറുതായിട്ട് മാറുകയും നമുക്കത് അത്ര ഒരു വീട്ടുകാരൊക്കെ പെട്ടെന്ന് ഇതൊക്കെ ശ്രദ്ധികുമ്പത്തേക്ക് അവർക്കും ഇതെന്താണ് ഇങ്ങനെ എന്നൊക്കെ അവരും നമ്മളും ഒക്കെ ചോദിക്കും പൊതുവേ എല്ലാവരും പറയപ്പെടുന്നത് കോട്ടയം ഇടുക്കി ഈ രണ്ട് ജില്ലകളിലെ ഭാഷയാണ് കറക്റ്റ് മലയാള ഭാഷന്നൊക്കെയാണ് അങ്ങനൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എല്ലാ എല്ലാ ജില്ലയ്ക്കും എല്ലാ ജില്ലക്കാരും പറയുന്നത് മലയാളം തന്നെയാണ് പിന്നെ അ സ്ലാങ്ങിൻ്റെ വ്യത്യാസമേ വരുന്നുള്ളൂ അല്ലാതെ ഇതിന് ഇത്ര പ്രശ്നമുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല പിന്നെ അടു അതുകൂടാത തന്നെ ഇപ്പം ഞാൻ പഠിക്കുന്ന കോളേജ് കുറെ പേര് കുറെ സ്ഥലത്ത് നിന്ന് വരുന്നതാണ് കുറെ സ്ഥലത്ത് നിന്ന് വരുന്നുണ്ട് പിന്നെ കോട്ടയത്ത് നിന്ന് വരുന്നവരുണ്ട് എറണാകുളത്ത് നിന്ന് വരുന്നവരുണ്ട് തൃശൂരിൽ നിന്ന് വരുന്നവരുണ്ട് തൃശൂരുകാരുടെ ഭാഷന്നൊക്കെ പറയുമ്പോൾ എന്താണ് എന്ത് ജ് ഗെഡി എന്താണ് അങ്ങനൊക്കെ പറഞ്ഞ് അവർക്ക് അങ്ങനെ പൊതുവേ എല്ലാ കാര്യങ്ങളും പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിലൊരു എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് എൻ്റെ അമീൻ എന്നാണ് പേര് അപ്പം അന്ന് വിളിക്കുന്നേ അപ്പം അവനെ ഞങ്ങള് വിളിക്കുന്നെ എന്താണ് മീനെ എന്താണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ അവനെ കളിയാക്കുകയും അവന്റെ സ്ലാങ്ങ് അതാണ് അപ്പം അതൊക്കെ നമുക്ക് ആദ്യമായിട്ട് കേൾക്കുമ്പത്തേക്ക് നമുക്ക് വളരെ രസകരമായി തോന്നുകയും നമ്മൾ അവനെ അങ്ങനെ മോക്ക് ചെയ്യുകയും നമ്മളെ അവൻ്റെ രീതിയിലേക്ക് ഇപ്പം അവൻ്റെ കൂടെ ഞാൻ നടന്ന് എന്നാ നമ്മൾ ഇടയ്ക്ക് അവനോട് സംസാരിക്കുമ്പത്തേക്ക് നമ്മള് അറിയാതെ അത് തൃശ്ശൂർ സ്ലാങ്ങിൽ സംസാരിക്കുകയും അതേ സമയം എൻ്റെ കൂടെ കോട്ടയംകാര് പഠിക്കുന്നവരുണ്ട് അപ്പം അവരോട് സംസാരിക്കുമ്പത്തേക്ക് അച്ചടി ഭാഷയാണ് എന്ന രീതിയില് അവരുടെ മലയാളം എന്ന് പറയുമ്പത്തേക്ക് വലിയ സ്ലാങ്ങിനൊന്നും വലിയ ഇതൊന്നും ഇല്ല അപ്പം സാധാരണ മലയാളം സംസാരിക്കുന്നതിനും നമുക്ക് സംസാരിക്കാൻ പറ്റും അതേ സമയം എറണാകുളംകാരുടെ കൂടെ ആകുമ്പത്തേന് എന്താണ് മെച്ചു അങ്ങനൊക്കെ പറഞ്ഞ് തിരുവനന്തപുരംകാർ ക്ലാസിലൊന്നും ഇല്ലേലും ഹോസ്റ്റലിൽ ഉള്ളത് കൊണ്ട് അവരോട് നമ്മള് സംസാരിക്കുമ്പത്തേ രീതിക്ക് സംസാരിച്ച് പോവുകയും നമുക്കങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവുകയോ അങ്ങനെയൊന്നും ഇല്ല നമ്മള് നമ്മളിതൊക്കെ ഒരു എക്സ്പീരിയൻസ് എന്നെ നിലയി എടുക്കുമ്പത്തേക്ക് നമുക്കത് യാതൊരു പ്രശ്നവും തോന്നാതെ ഭാഷയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ ശ്രദ്ധ ശ്രദ്ധിക്കാന്ന് കുറെ വാക്കുകൾ എന്ന് പറയുമ്പത്തേക്ക് തൃശ്ശുരുകാര് ഗഡി എറണാകുളംകാര് മച്ചു തിരുവനന്തപുരംകാർ അപ്പി ഇങ്ങനത്തെ കുറെ വാക്കുകൾ ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്നും പോവാതെ അങ്ങനെ ഒരു വാക്ക് രസകരമായി തോന്നുമ്പത്തേക്ക് നമ്മുടെ മനസിലേക്കതങ്ങ് കയറുകയും ചെയ്യുമ്പത്തേക്ക് നമ്മള് പിന്നെത് വിടത്തില്ല നമ്മള് പിന്നെ അതിനെപ്പറ്റി തന്നെ അങ്ങ് പറഞ്ഞ് നമ്മൾ അങ്ങ് അത് തന്നെ സംസാരിച്ച് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ അതിനെപറ്റി തന്നെ സംസാരിച്ചോണ്ടിരുന്ന എല്ലാവരുടെയും കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പത്തേക്ക് പുതിയ പുതിയ വാക്കുകളൊക്കെ പഠിച്ച് നമുക്ക് ആ ഒരിത് തോന്നുകയും നമുക്കങ്ങനെ യാതൊരു ബുദ്ധിമുട്ടോ അല്ലേൽ യാതൊരു ഇതോ ഒന്നും തോന്നില്ല നമ്മളിതൊക്കെ നമ്മൾ ഇപ്പം പഠിക്കുന്ന സമയത്താണേൽ അല്ലേൽ ഇവിടെ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മള് പുതിയ പുതിയ ആൾക്കാരോട് മിംഗിൾ ചെയ്യുമ്പത്തേക്ക് പുതിയ പുതിയ ആൾക്കാരെ കണ്ടുമുട്ടുമ്പോൾ കുറെ വാക്കുകള് പഠിക്കുക നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അറിവും നേടി അങ്ങനെ ഒരു പ്രശ്നമില്ലാതങ്ങു പോവുകയും ചെയ്യുമ്പത്തേക്ക് നമുക്ക് എല്ലാത്തിനെ പറ്റിയും അറിഞ്ഞ് പഠിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു നമുക്ക് കുറച്ചും കൂടെ നല്ല നല്ല നല്ല കാര്യങ്ങൾ അറിയുകയും ആൾക്കാരുടെ എക്സ്പീരിയൻസ് അറിയുകയും പുതിയ ഭാഷാ രീതി അറിയുകയും ഒക്കെ ചെയ്യുമ്പത്തേനും നമുക്ക് തന്നെ ഒരു സംതൃപ്തി അല്ലേൽ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തന്നെ തോന്നുന്നതാണ്